ഹലോ ഞാന് ഇന്നൊരു ഡിന്നർ പാർട്ടിയുണ്ട് വീട്ടില് നടത്തുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു ഗ്യാസ് സിലിണ്ടര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം അതില് എനിക്ക് ബുക്കിങ്ങില് എന്തോ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞായിരുന്നു ആ വിളിച്ചു ചോദിക്കുകയായിരുന്നു ആ എന്തെങ്കിലുമൊന്ന് ശരിയാക്കിത്തരണം കേട്ടോ എനിക്കത് ഇന്നുതന്നെ ചെയ്തു കിട്ടണം കാരണം എനിക്കിന്ന് നൈറ്റാണ് പാർട്ടി വെച്ചിരിക്കുന്നത് അപ്പോള് എല്ലാവരും ഇവിടെ വന്നു തുടങ്ങുന്നുണ്ട് അതൊരു ബുദ്ധിമുട്ടാകാരുത് പിന്നെ എന്തെങ്കിലും സിലിണ്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകില് നിങ്ങളത് ശരിയാക്കിത്തരണം അല്ലെങ്കില് നിങ്ങളത് എന്തെങ്കിലും വേറെ വഴി കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു കറക്റ്റ് വർക്ക് എനിക്ക് കിട്ടണമെന്ന് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങളത് ഉത്തരവാദിത്തത്തോടെ ചെയ്തിട്ടില്ല ആ എന്തായാലും എനിക്കത് കിട്ടിയെ പറ്റുള്ളൂ അല്ലെങ്കില് ഞാൻ നിങ്ങൾക്കത് പറ്റില്ലെന്നുണ്ടെങ്കില് ഞാനത് വേറെ ആൾക്കാരെ ഞാൻ വിളിച്ച് ചെയ്തേനെ നിങ്ങളത് ഉത്തരവാദിത്തത്തോടെ നോക്കാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നമുണ്ടാകുന്നത് എന്തായാലും എനിക്കത് കിട്ടണം ആൾക്കാര് വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല ഞാൻ വിളിച്ചിട്ട് നിങ്ങളുടെ കസ്റ്റമർ കെയറിലേക്ക് ഞാന് വിളിച്ചു ചോദിച്ചായിരുന്നുവല്ലോ അപ്പോള് അത് കിട്ടിയിട്ടില്ലല്ലോ എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമൊന്നും അറിയില്ലല്ലോ ഉത്തരമൊന്നും കിട്ടിയിട്ടില്ല ആ എന്തായാലും അതൊന്ന് ചെയ്ത് അന്വേഷിച്ചിട്ട് ഇപ്പോള്ത്തന്നെ എനിക്ക് ഒന്നുകില് വിളിക്കുക അല്ലെങ്കില് മെസ്സേജ് അയക്കുക അത് നിങ്ങള്ക്ക് പറ്റുന്നില്ലെങ്കില് ഞാനത് വേറെ ചെയ്തിടും ഓക്കെ എന്നാല് ശരി